അതായത് ഞാൻ ശേഖരിച്ച സ്റ്റാമ്പുകളും നാണയങ്ങളും പാറകളൊക്കെന്നു വെച്ചിട്ടുണ്ടെങ്കില് അതായത് പാറകള് അങ്ങനത്തേ സംഭവങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ല സ്റ്റാമ്പുകള് നാണയങ്ങളൊക്കേ അതായത് പണ്ടത്തേ കാലത്തേ അതായത് പണ്ടത്തേ സ്റ്റാമ്പുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല ഇപ്പോൾ സ്റ്റാമ്പുകളുടെ ആവശ്യമൊക്കെ വളരെ കുറവാണ് കാരണം ഇപ്പോഴെല്ലാം അക്ഷയയിലും അങ്ങനെയെല്ലാം കംപ്യൂട്ടറുവഴി ആയതുകൊണ്ട് നമുക്കങ്ങനേ ഫോം വലിയ കാര്യങ്ങളൊന്നും ഫിൽ ചെയ്ത് സ്റ്റാമ്പൊന്നും ഒട്ടിക്കേണ്ടി വരില്ല അപ്പോൾ പഴയ സ്റ്റാമ്പുകൾ ഒരുപാട് എല്ലാവരും അതായത് പണ്ടത്തെ എൻ്റെ അച്ഛൻറ്റച്ഛനൊക്കെ മാഷൊക്കെയായിരുന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നേ പണ്ടത്തേ അണ അതായത് പിന്നെ പത്ത് പൈസ അഞ്ചു പൈസ എന്നൊക്കെ പറയുന്ന അങ്ങനത്തേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ശേഖരിച്ചു വയ്ക്കും പിന്നേ അതും ഇന്നത്തേതും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും എന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പണ്ടത്തെ കാര്യം പണ്ടത്തെ സാധനങ്ങൾക്കൊക്കെ വലിയൊരു മൂല്യം തന്നെയാണ് അതൊക്കെ നൽകുന്നത്